ചക്ക ചക്ക ഉണ്ട് നമുക്ക് പല വിഭവങ്ങൾ നമ്മൾ ഉണ്ടാക്കുന്നുണ്ട് ചക്ക എലിശ്ശേരി ഇടിച്ചക്ക അവിയൽ ഇങ്ങന പല ഐറ്റംസുകൾ ചക്കകൊണ്ടുള്ള കറികൾ ഉണ്ടാക്കും പിന്നീട് ചക്ക ഉപ്പിലിട്ടതും ചക്ക അച്ചാർ ചക്ക ജാം സ്ക്വാഷ് ചക്കയപ്പം അങ്ങനെ കുറേ കാര്യങ്ങൾ ചക്കകൊണ്ട് ചെയ്യാം പണ്ട് പണ്ടു കാലത്ത് ചക്ക ആർക്കും വേണ്ട ഒരുകാലത്ത് പിന്നെ ഭക്ഷണത്തിന് ഭയങ്കര ദാരിദ്ര്യം ഉണ്ടായിരുന്ന സമയത്ത് ആളുകൾ ഈ ചക്ക ചക്ക കൊത്തി അരിഞ്ഞ് അത് ആണ് കൂടുതൽ സമയം കഴിച്ചുകൊണ്ടിരുന്നത് ആ ഇടയ്ക്ക് ആ കാലം മാറി അരി അരി ഭക്ഷണം വന്നതോടുകൂടി ചക്ക ആർക്കും അധികം വേണ്ടാതായി ഇപ്പം ചക്ക ചക്കകൊണ്ട് നമുക്ക് ചക്ക എല്ലാ സ്ഥലത്തും ഇഷ്ടംപോലെ ചക്ക എല്ലാവരുടെ വളപ്പിലും ഉണ്ടായി ഉണ്ടായിക്കൊണ്ടിരിക്കുന്നുണ്ട് ഇപ്പോഴും ആർക്കും ചക്കയുടെ ഇതിനെക്കുറിച്ച് അറിയില്ലായിരുന്നു ഇപ്പം പിന്നെ ചക്കകൊണ്ട് ഒരുപാട് ഇത് വിപണിയിൽ വന്നു തുടങ്ങി ചക്ക ജാം സ്ക്വാഷ് ഇങ്ങനെ കുറേ ഐറ്റം ചക്കപ്പൊടി ചക്കച്ചുളയുടെ പൊടി ചക്കക്കുരു ഇതെല്ലം പിന്നെ ഐസ് ക്രീം ഇതെല്ലം ചക്കക്കുരുൻ്റെ പൊടികൊണ്ട് ഉണ്ടാക്കുന്നുണ്ട് പിന്നെ ചക്ക ചക്കയപ്പം അങ്ങനെ ചക്കകൊണ്ട് ഒരുപാട് വെറൈറ്റി സാധനങ്ങൾ ഇപ്പം വിപണിയിൽ ഇറങ്ങി ഇറക്കിയിട്ടുണ്ട് ചക്ക പപ്പടം പിന്നെ ചക്കപ്പപ്പടം പോരാത്തതിന് ചക്ക ഐസ് ക്രീം പിന്നെ നല്ല ഒരു ഇതാണ് ചക്ക പപ്പാടമാണെങ്കിൽ ചക്ക ചക്ക കൊത്തിയരിഞ്ഞ് പിന്നെ ചുളയെടുത്ത് പാകം ചെയ്ത് വേവിച്ചിട്ട് ചുള മാത്രം ഇളം ലൈറ്റായിട്ട് ഉപ്പുമിട്ട് വേവിച്ച് വെന്ത് ഒന്നാറി കഴിയുമ്പം അത് ആ അത് വെന്തൊന്നാറി കഴിയുമ്പം അതിനെ ഇങ്ങനെ ആട്ടു കല്ലിലിട്ട് വെള്ളം തൊടാതെ അരച്ചെടുക്കണം അതിലേയ്ക്ക് പിന്നെ ജീരകം കുറച്ച് ജീരകവും കുറച്ച് ഉപ്പും ഇത് മുളകുപൊടി എന്തെങ്കിലും വേണമെങ്കിൽ ചേർക്കാം ഇല്ലെങ്കിൽ വെറുതെ ഉപ്പിട്ട് അരച്ചെടുക്കാം അരച്ചെടുത്ത് ഇതിനെ ഇത് നമ്മൾ ഇത് പപ്പടം ഇതാക്കി ഇത് ഉപയോഗിച്ച് എടുത്തതിന് വേവിച്ച് അരച്ച ഇതിന് ഒന്ന് ഒന്ന് ചെറുതായിട്ട് കയ്യിൽ എണ്ണ തടവിയിട്ട് നമ്മൾ നല്ലൊരു പ്ലാസ്റ്റിക് ഷീറ്റെടുത്തിട്ട് പിന്നെ അതിലേക്ക് ഈ പപ്പടം ഈ ചക്ക അരച്ചത് ചെറിയ ഉരുളകളാക്കിയിട്ട് അതിൽ വെച്ച് ഒന്ന് പരത്തിയെടുക്കണം പരത്തിയെടുത്തിട്ട് ഒരു രണ്ട് മൂന്ന് ദിവസം നല്ല വെയിലത്ത് വെച്ചു ഉണക്കിയെടുത്ത് വെയിലത്ത് വെച്ച് ഒന്ന് വാട്ടിയെടുത്ത് പിന്നെ അത് ഒന്ന് തിരിച്ചും മറിച്ചും ഒന്ന് വെയിൽ നല്ല ഇതായി കൊള്ളണം നല്ല വെയിൽ കൊണ്ട ശേഷം നല്ല ഡപ്പ ടിന്നുകളിലാക്കി അടച്ചു വെക്കണം ടിന്നുകളിലാക്കി അടച്ച് വെച്ചാൽ അടച്ച് വെച്ചാൽ നല്ല ക്ലിയറായിയെന്ന് കണ്ടാൽ പാക്ക് പാക്ക് ചെയ്തതടക്കം ഒരു ഇരുപത്തഞ്ചെണ്ണം വീതം വച്ചിട്ട് നമ്മളൊന്ന് പാക്ക് ചെയ്തെടുത്തിട്ട് അത് പ്ലാസ്റ്റിക് കവറിലാക്കി പാക്ക് ചെയ്ത് സീലൊക്ക വെച്ചിട്ട് നമുക്ക് അതിന് നല്ല ഓക്കേ സ്റ്റിക്കറൊക്കെ ഒട്ടിച്ചെടുത്തിട്ട് വിപണിയിൽ ഇറക്കാനുള്ളതാണ് ചക്കപപ്പടം ഇതാക്കി എടുക്കും ചക്കയുടെ സ്ക്വാഷ് ആണെങ്കിലും നല്ല ചക്ക ചക്കയപ്പാണെങ്കിലും അങ്ങനെ പഴുത്ത ചക്ക വേവിച്ചെടുത്തത് പഴുത്ത ചക്കച്ചുള ഇരിഞ്ഞ് ഞാൻ മിക്സിയിൽ ഇട്ട് അടിച്ച് ഇത് അരി അരി അരച്ചോ അരിപ്പൊടി ആക്കിയെടുത്തോ അതിൽകൂടി ഈ അരച്ച ചക്കയും ഇട്ടു കുഴച്ച് തേങ്ങയും ചിരകി ശർക്കരയും ഇതാക്കി ഇട്ടിട്ട് ഒന്ന് ഇല വാഴയിലയോ വേറെ ഇലയിലോ അല്ലെങ്കിൽ പ്ലേറ്റിൽ എണ്ണ തടവിയിട്ട് അതിലേക്ക് ഈ അരച്ച് ഇത് അരച്ച ചക്കയപ്പത്തിൻ്റെ ഈ മാവിനെ അതിലേക്ക് ഇതാക്കിയിട്ട് അങ്ങനെ വേണമെങ്കിൽ ഇതാക്കിയിട്ട് ആവിയിൽ വേവിച്ച് എടുക്കാവുന്നതാണ് ഇങ്ങനെ വേവിച്ച് മുറിച്ചെടുക്കാം അങ്ങനെ ജാം സ്ക്വാഷാണെങ്കിൽ അങ്ങനെ ചക്ക നല്ല പഴുത്ത ചക്കയിൽ സ്ക്വാഷ് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും

ഒരു സ്ക്വാഷ് ഉണ്ടാക്കി വെച്ചാൽ നമ്മൾക്ക് വേനൽക്കാലത്ത് അതു ഉണ്ടാക്കി ഫ്രിഡ്ജിൽ സൂക്ഷിച്ചാൽ വേനൽക്കാലത്ത് ഇതാക്കി എടുക്കാവുന്നതാണ് ആവശ്യത്തിന് വെള്ളം മാത്രം ചേർത്താൽ മതി പഞ്ചസാരയൊക്കെ ഇട്ട് അത് ഒന്ന് ഇതാക്കി എടുത്ത് ഇതാക്കി എടുക്കാവുന്നതാണ് ഇട്ട് ചക്കച്ചുള ആക്കിയെടുത്താൽ അതിലേയ്ക്ക് ആവശ്യത്തിന് വെള്ളം മാത്രം ചേർത്താൽ മതി പിന്നീട് എടുക്കുന്ന നേരത്ത് പഞ്ചസാരയൊന്നും ഇത് ചേർക്കേണ്ട പെട്ടന്ന് നമ്മുടെ അത്യാവശ്യത്തിന് നമുക്ക് ചൂട് സമയത്തക്കെ നമുക്ക് കഴിക്കാൻ എടുക്കാൻ പറ്റും വീട്ടിലാരെങ്കിലും ഗസ്റ്റൊക്കെ വന്ന് കഴിഞ്ഞാൽ ചക്കയില്ലാത്ത സമയങ്ങളിൽ നമുക്ക് ചക്ക ചക്കയുടെ സ്ക്വാഷ് ഉണ്ടാക്കുന്നത് അത് മഴക്കാലത്താണെങ്കിലും പിറ്റേ വർഷം ആണെങ്കിലും ചക്കയില്ലെങ്കിൽ നമുക്ക് ഈ ചക്കയെടുത്ത് ചക്കച്ചുളയിൽ നിന്ന് അതിലൊരു വെള്ളം നനവില്ലാത്ത പാത്രത്തിൽ വെള്ളമോ എണ്ണയോ ഒന്നും ഇല്ലാത്ത പാത്രത്തിൽ മൺപാത്രത്തിൽ വലിയ ഭരണിയിലോ എടുത്ത് സൂക്ഷിച്ചാൽ അത് ചക്ക കിട്ടാത്ത സമയങ്ങളിൽ നമുക്ക് ഒരു ലയർ ചക്ക പിന്നീട് കല്ലുപ്പും ഇട്ടിട്ട് വെച്ച് അതിൻ്റെ പുറത്ത് വീണ്ടും ചക്കച്ചുള വീണ്ടും കല്ലുപ്പ് അങ്ങനെ മൂന്നാല് ലയർ ഇട്ടിട്ട് അടച്ച് വെച്ച് കഴിഞ്ഞാൽ പിറ്റേ അതിൻ്റെ മുകളിൽ എന്തെങ്കിലും വെയ്റ്റിന് ഇങ്ങനെ വച്ച് കഴിഞ്ഞാൽ ചക്ക ഉപ്പ് പിടിക്കുന്ന പോലെ താഴ്ന്നു വന്നുകൊണ്ടിരിക്കും ഇങ്ങനെ കുപ്പിയിലാക്കി സൂക്ഷിച്ചാൽ ചക്കയില്ലാത്ത സമയങ്ങളിൽ നമുക്ക് ഈ ചക്ക ഉപ്പിലിട്ട് വച്ച ചക്കച്ചുള എടുത്ത് കറി വയ്ക്കാം